ഞങ്ങളെ സംബന്ധിച്ചെടുത്തോളം ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടിലെ റോഡൊക്കെ ഒരു ഭയങ്കര മോശം റോഡാണ് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ പനമരം റോഡ് അങ്ങോട്ടൊക്കെ ഉള്ള വഴി ഭയങ്കര കഷ്ടം പിടിച്ച വഴിയാണ് പള്ളിക്കുന്ന് പോവുന്ന റോഡൊക്കെ ഭയങ്കര പൊട്ടി പൊളിഞ്ഞൊരു റോഡാണ് അതിലെയൊക്കെ പോയാൽ ഭയങ്കര അവസ്ഥയാണ് കാരണം ഒരു സ്കൂട്ടറൂം കൊണ്ടൊക്കെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ ടയാറൊക്കെ ഉരഞ്ഞ് തിരിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പറയേണ്ട എപ്പോൾ വേണമെങ്കിലും അടിച്ചുകെട്ടി വീഴാം ഞങ്ങൾ പയ്യമ്പള്ളി വഴിയാണെങ്കിൽ വീണിട്ടും ഉണ്ട് ചരൽ കാരണം കാരണം ഞങ്ങളുടെ റോഡത്രയും മോശമാണ് കട്ടറ് തന്നെയേ ഉള്ളു പക്ഷെ പണ്ടത്തെ വെച്ചു നോക്കുകയാണെങ്കിൽ ഇപ്പം കുഴപ്പം ഇല്ലയെന്നു പറയാം എന്നാലും ചിലയിടത്തൊക്കെ ഫുള്ള് പൊടിയും റോഡെല്ലാം പോയി ഇപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഈ കണ്ണൂർ ആ ചുരത്തിൻ്റെ അവിടെ നോക്കിയാലോ ഇപ്പോൾ റോഡ് പണിയാണ് കാരണം റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ആ ഒരു രീതിയിലാണ് ഉള്ളത് ഭയങ്കര കഷ്ടമാണ് വണ്ടിയും കൊണ്ടൊക്കെ പോകുന്നവരെ സമ്മതിക്കണം ഒരുപാട് ആക്സിഡന്റ് ഉണ്ടാവുന്നതെങ്ങനെയാണ് ഇതുമൂലം ഒക്കെ തന്നെയാണ് വഴി മോശമാവുന്നതുകൊണ്ടോ ഈ ഗട്ടറിലൊക്കെ വീണ് തട്ടലും ഗട്ടറിൽ നിന്നൊക്കെ തെറിച്ചുവീണും മരിക്കലുമൊക്കെ ഒരുപാട് കൂടി വരികയാണ് ഇപ്പം ബൈക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ എല്ലാം ഇങ്ങനെയെല്ലാ അപകടം സംഭവിക്കുന്നത് ചില പാതകളിലൂടെ വണ്ടി ഓടിക്കൽ ഭയങ്കര കഷ്ടപ്പാടാണ് കാരണം അത്രയും മോശം റോഡാണ് നമ്മുടെ കേരളത്തിലെ നല്ല റോഡെന്നൊന്നും പറയാൻ അങ്ങനെ ഇല്ല ഞങ്ങളുടെ വയനാട് ജില്ലക്കാരെ സംബന്ധിച്ചെടുത്തോളം ഞങ്ങൾക്ക് നല്ല റോഡങ്ങനെ പറയാനില്ല നമ്മൾ തന്നെ അടിപൊളി റോഡ് കാണുന്നത് ഈ പറഞ്ഞതുപോലെ വേറെ സ്ഥലത്തു പോവുമ്പോഴാണ് ഇപ്പോൾ ഈ മൈസൂറൊക്കെ പോവുമ്പോൾ നമ്മളിങ്ങനെ കാണും അയ്യോ എന്തു നല്ല റോഡാണെന്ന് അതാണ് ഞങ്ങളുടെ അവസ്ഥ